ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് എന്തിനാണന്ന് വച്ചാൽ നമ്മള് അത് ക്ലാരിറ്റി കറക്റ്റ് ആയി കിട്ടാനും അതേപോലെ ചിത്രങ്ങൾക്ക് ഒന്ന് കൂടി മോടി കൂട്ടാനും മോടി കൂട്ടാകാന്ന് പറഞ്ഞ് ഒന്ന് കൂടി മെച്ചപ്പെടുത്തി എടുക്കാൻ നമ്മള് മോഡിഫിക്കേഷൻ ചെയ്യും അതേപോലെ അഡീഷണൽ ആയിട്ട് ഒന്ന് കൂടി മോഡിഫൈ ചെയ്ത നല്ലൊരു പിക്ക് ആയിട്ട് ക്ലാരിറ്റി ഒന്നും പോകാണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് കൂടുതലും എഡിറ്റ് ചെയ്യാറ് അത് എഡിറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയറ് അഡോബ് ലൈറ്റ് റൂമ് വച്ച് എഡിറ്റ് ചെയ്യാറ്ണ്ട് അതേപോലെ അഡോബ് ഫോട്ടോഷോപ്പ് എക്സ് പ്ലസ് അങ്ങനെ അങ്ങനേള്ള ക്യാപ്ചർ വണ്ണ് പിൻസോപ്രോ അങ്ങനെള്ള സോഫ്റ്റ്വെയറക്കേണ് കൂടുതലും ഉപയോഗിക്കാറ് അതേപോലെ ക്യാൻവാ ഇങ്ങനല്ലതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മള് ഫോട്ടോസും ഇമേജ്സൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത് കറക്ടറായിട്ടും നമുക്കത് എഡിറ്റ് ചെയുമ്പോൾ അതിൻ്റെ പൊസിഷനും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും അതേപോലെ ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റാനും പറ്റും അതേപോലെ നമുക്ക് വേണ്ട കളർ കൊടുക്കുക അതേപോലെ നമുക്ക് എവിടെങ്കിലും എഡിറ്റ് ചെയ്തിട്ടിപ്പോൾ ഒരു പിക്ചർ ആണ് നമുക്കതിൻ്റെ ബാക്കിലുള്ള ബാക് ഗ്രൗണ്ട് മാറ്റണങ്കിൽ നമുക്ക് മാറ്റിട്ട് ആ പിക്ചറിന് നമ്മൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണം ഇപ്പോൾ നമ്മളൊരു വീട്ടിൻ്റെ ഉമ്മറത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുവാണ് നമുക്കത് വീടിൻ്റെ ബ വീടിൻ്റെ ഉമ്മറത്തല്ല വേണ്ടത് ഒരു ബംഗ്ലാവിൻ്റെ അല്ലങ്കിൽ ഫ്ലാറ്റിൻ്റെ ഉമ്മറത്താണ് നമുക്കപ്പം ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടവിടെ ഫ്ലാറ്റോ അല്ലങ്കി ഒരു ബംഗ്ലാവ് പോലുള്ള സംഭവമൊക്കെ കൊണ്ടെ വക്കാൻ പറ്റും അതേപോലെ നമ്മളിപ്പോൾ സ്ഥലം അതേപോലെ ക്ലൈമറ്റ് ക്ലൈമറ്റ് ഈ ക്ലൈമറ്റല്ല വേണ്ടത് വേറെ ക്ലൈമറ്റാണ് ക്ളൗഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലൈമറ്റ് മാറ്റാൻ പറ്റും ഇതൊക്കെ നമുക്ക് എഡിറ്റിങ്ങിലൂടെ മാറ്റാൻ പറ്റും അതേപോലെ നമ്മള് ഇട്ട ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമുക്ക് ഇതല്ല വേണ്ടത് ഡ്രെസ്സിൻ്റെ വേറെ ഡ്രസ്സ് മാറ്റാൻ പറ്റും ഡ്രസ്സ് നമുക്ക് ഏത് ഡ്രസ്സ് വേണോ സ്യൂട്ട് വേണോ എങ്ങനത്തെ വേണം അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അതേപോലെ പിന്നെ നമുക്ക് ഡ്രെസ്സിൻ്റെ കളർ വേണെങ്കിൽ കളറും ചേഞ്ച് ചെയ്യാം ഏത് കളർ വേണം റെഡ് വേണോ അതോ ബ്ലൂ യെല്ലോ ഏത് കളർ വേണ്ടേ പറഞ്ഞാൽ ആ കളറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് എഡിറ്റിങ്ങിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് സാധി സാധിച്ചെടുക്കാൻ എടുക്കാൻ എടുക്കാൻ പറ്റും അതേപോലെ വേറെ എന്തെങ്കിലും അഡിഷണൽ ആയിട്ട് ആഡ് ചെയ്യണങ്കിൽ അതും നമുക്ക് എഡിറ്റിങ്ങിലൂടെ സാധിച്ചെടുക്കാം അതൊക്കെ എഡിറ്റിങ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടേതായ ആ ഒരു പ്രൊഫെഷണാലിറ്റി കിട്ടും നമുക്കാ ഫോട്ടോസിന് അത് കറക്റ്റായിരിക്കും ആ ഒരു പിക്ചറ്റിന് പിന്നേം ഭംഗി കൂട്ടും അതൊക്കെ ഇതാണ് മെയ്നായിട്ട് ഉദ്ദേശിക്കണത് നമ്മള് എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ഒന്ന്കൂടെ മോഡിഫൈ ചെയ്ത് പിക്ചറ്ന് ചന്തം വരുത്തുക അതാണ് ഉദ്ദേശിക്കുന്നത്